മൃഗങ്ങൾക്ക് മേയാൻ പച്ചപ്പുള്ള സ്ഥലങ്ങൾ ഇവിടെ ലഭ്യമാണ് കാരണം എന്താണെന്ന് വച്ചു കയിഞ്ഞാൽ ഇവിടെ പുൽമേടുകളും പിന്നെ ഫോറസ്റ്റ് ഏരിയയും അങ്ങനത്തെ ഏരിയകളൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള പച്ചപ്പുള്ള പുല്ലുകളൊക്കെ ഇവിടെ ലഭ്യമാണ് കാലികൾക്കും ഇപ്പം കാട്ടിലെ മൃഗങ്ങൾക്കാണെങ്കിലും എല്ലാ ജീവികൾക്കും പുല്ല് പുല്ല് തിന്നണമെങ്കിൽ ഇപ്പോൾ കാട്ടിലും നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇതിൽ എന്താ പറയുക മൃഗങ്ങൾക്ക് ഭക്ഷണം കിട്ടാണ്ട് ആവുകയോ അങ്ങനെ ഒരു പ്രശ്നവും ഇവിടെയില്ല പിന്നെ മോശം കാലാവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല രീതിയിൽ വെയിൽ കാര്യങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ ഈ പുല്ലെല്ലാം ഉണങ്ങിപ്പോവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് മൃഗങ്ങൾക്കങ്ങനെ കിട്ടുന്നില്ല ഇപ്പം പുല്ല് അതാണൊരു പ്രശ്നം ഉള്ളത് പിന്നെ വേറെയെന്ന് വച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്ക് ഒക്കെ എന്താ പറയുക ആൾക്കാർ വലിച്ചെറിയുക വലിച്ചെറിഞ്ഞു കഴിയുമ്പോൾ മൃഗങ്ങളത് തിന്നും തിന്നു കഴിഞ്ഞിട്ട് വയറ്റിൽ കുടുങ്ങി അവർക്ക് പല അസുഖങ്ങളും പിന്നെ മൃഗങ്ങളൊക്കെ ചത്തുപോവും അങ്ങനത്ത കുറേ പ്രശ്നങ്ങളൊക്കെയുണ്ട് പിന്നെ ജലക്ഷാമം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ വെയിൽ ഉള്ള സമയത്ത് ഇവരുടെ കുളത്തിലും എല്ലാം വറ്റിപ്പോവാൻ ഉള്ള ഇതുളള ചാൻസ് ഉള്ളതുകൊണ്ട് മൃഗങ്ങൾ പലതും വെള്ളം കിട്ടാണ്ട് മരിക്കുകയും എല്ലാ കാര്യങ്ങളും അങ്ങനെ പലതും ഉണ്ടാവാറുണ്ട് അപ്പം ഇതൊക്കെ ഒരു പ്രശ്നമാണ്